പുതിയ പുതിയ ഡിസൈന്കൾ മറ്റും ഞാൻ യൂറ്റൂബ് ചാനല്കളിൽ നോക്കിയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അതിനകത്ത് എല്ലാം കറക്റ്റായിട്ട് അളവുകളും പെട്ടന്ന് രീതികളും എല്ലാം തന്നെ അവർ നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് ഇത് സമൂഹത്തിൽ ഒന്നും പരസ്യപ്പെടുത്ത് പരസ്യപ്പെടുത്തുന്നൊന്നുമില്ല നമ്മളത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് വെട്ടി പുതിയ ഡിസൈൻലുള്ള ഡ്രസ്സ്കൾ നമ്മൾ തയ്ച്ച് എടുക്കുകയാണ് ചെയ്യാറുള്ളത് ഒരു പുതിയ ഡിസൈൻ ചെയ്യുന്നതിന് പുതിയ ഫാഷന്കളിലുള്ള ഏതൊരു ഏത് നാട്ടിലെ ആണേലും പുതിയ ഫാഷനുള്ള സാധനങ്ങൾ നമുക്ക് യൂട്യൂബിൽ വരുന്നത് കൊണ്ട് അത് മനസ്സിലാക്കി അതിൻ്റെ മോഡലിങ് നമുക്ക് സാധാരണ തയ്ച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നു നമുക്കൊരളവ് കിട്ടുന്ന രീതി പോലും അറിയില്ലെങ്കിൽ അതിനകത്ത് വീഡിയൊ സഹിതം വരുന്നതിനാൽ അതിൻ്റെതായ കറക്റ്റളവ്കളിൽ നമുക്കത് വെട്ടി തയ്ച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നു അത്കൊണ്ട് യൂറ്റൂബ് തന്നെയാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറുള്ളത് അതാകുമ്പോൾ ഏത് നാട്ടിൽ ന്നെന്നെ പുതിയ ട്രെൻഡിങ് ട്രെൻഡിങ് ഡിസൈൻസുകൾ ഒക്കെ തന്നെ അതിനകത്ത് നമുക്ക് കാണാനും ആ ഫാഷൻലെ ഉള്ള രീതി രീതിയിലുള്ള ഇത് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി പുതിയ ഒരു എല്ലാവരിൽ നിന്നും വെറൈറ്റി വെറൈറ്റിയായ ഡ്രസ് തയ്ച്ചെടുക്കുന്നതിന് നമുക്ക് കഴിയും കഴിയുകയും ചെയ്യുന്നു ഇങ്ങനെ ഓരോ രീതിയിലും സാധിക്കുന്നത്രയും സാധിക്കുന്നത്രയും ആയിട്ട് ഉപയോഗിക്കപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തുന്നു യൂറ്റൂബിൽ നിന്നും കിട്ടുന്ന പുതിയ അറിവുകളാണ് ഓരോ പാഠം ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് എല്ലാ തരം എല്ലാ തരത്തിലുമുള്ള തന്നെ ഡിസൈൻസിനെ കുറിച്ചും ഒരു അവലോകനം നടത്തുന്നതിനും ഇത് ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിക്കുന്നു തയ്ച്ചെടുക്കുന്ന ഡ്രസ്സ്കൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് തയ്ച്ചെടുക്കുവാനും സാധിക്കുന്നു തന്നെ ഉണ്ട്